മലയാള ഭാഷ കൈരളീ എന്നറിയപ്പെടുന്നു കേരള സംസ്ഥാനത്തിന് ഭരണ ഭാഷയും സംസാരഭാഷയും കൂടിയാണ് മലയാളം മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും അതല്ല സംസ്കൃതവും തമിഴും കൂടിക്കലർന്നൊരു മിശ്രിത ഭാഷയാണെന്നും ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നാൽ ഗവേഷണങ്ങൾ ഇതിനെ ഗവേഷണങ്ങൾ ഇതിനെയെല്ലം നിരാകരിക്കേം മലയാളം മലനാട് തമിഴിൽ നിന്നും ഉത്ഭവിച്ചതായും പറയപ്പെടുന്നു

കൊടുന്തമിഴുകളിൽ ഒന്നാണ് മലയാളമായി തീർന്നതെന്നും അഭിപ്രായപ്പെട്ടപ്പോൾ മലയാളത്തിൻ്റെ മൊത്തമായും ഉപയോഗിച്ചിരുന്ന കൊടുന്തമിഴ് സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി സ്വന്തമായ വ്യക്തിത്വം പ്രകടിപ്പിച്ചു വിഘടിച്ചു എന്നാണ് ഉള്ളൂർ പറയുന്നത് ദ്രാവിഡം എന്ന മൂലഭാഷയിൽ നിന്നുണ്ടായതാണ് മലയാളമെന്നും പറയപ്പെടുന്നു മലയാള ഭാഷ ഏറ്റോം കൂടുതൽ സ്വാധീനിച്ചതിൽ സംസ്കൃതോം ഉൾ ഉൾപ്പെടുന്നുണ്ട് ദ്രാവിഡ പൈതൃകവും ബ്രാഹ്മണ മേധാവിത്വവുമാണ് അതിന് കാരണം ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന സംസ്കൃത ഭാഷ കൂട്തൽ ജനകീയമാവുകേം മറ്റുള്ള ജനങ്ങളിലത് ഉപയോഗിക്കാനും തുടങ്ങി കൂടുതൽ മന്ത്രങ്ങളും ഒക്കെ ഇപ്പോൾ നമുക്ക് സംസ്കൃതത്തിലാണ് ഇപ്പോഴും ആൾക്കാർ ചൊല്ലുന്നതും പറയുന്നതും ഹിന്ദുമതവും ആയി ബന്ധപ്പെട്ട് പറഞ്ഞാൽ കൂടുതലും സംസ്കൃതഭാഷയാണ് കൂടുതലും അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ കീർത്തനങ്ങളും മന്ത്രങ്ങളും വേദങ്ങളും എല്ലാം സംസ്കൃതം സംസ്കൃതം തന്നെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സംസ്കൃതത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രാഹ്മണ വിഭാഗത്തിൽപെട്ടവർ കൂടുതൽ സംസാരിക്കുന്നത് മലയാളത്തിനേക്കാൾ കൂട്തലും സംസ്കൃതമായ അവരുടെ വരവോടുകൂടി നമുക്ക് മലയാളഭാഷയിൽ ഒരു നല്ല സ്വാധീനം ചെലുത്താൻ സംസ്കൃതത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നതു പോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷും നമുക്ക് പല വാക്കുകൾ ഇപ്പം മലയാളത്തിൽ ഇപ്പം ഡെസ്ക് ബെഞ്ച് അതിനൊന്നും മലയാളവാക്കുകൾ നമുക്ക് അർത്ഥം കണ്ട് പിടിക്കാൻ വേണമെങ്കിൽ പക്ഷേ സംസാരഭാഷയിൽ നമ്മൾ ഉപയോഗിച്ചുപോവുന്നത് ഡെസ്ക് ബെഞ്ച് അങ്ങനെ ചോക്ക് അങ്ങനെ പല കാര്യങ്ങളും പല വാക്കുകളും നമുക്ക് അതിന് മലയാളം വാക്കുകൾ തന്നെ ഇല്ല എന്ന്തന്നെ പറയാം അപ്പം അത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഇടകലർന്നു കൊണ്ടാണ് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാനായിട്ട് പറ്റു മലയാളം മാത്രമായി സംസാരിക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കൂടെ ഇംഗ്ലീഷും സംസ്കൃതവുമൊക്കെ ഇടകലർന്ന് വരും അപ്പം കൂടുതൽ ഇംഗ്ലീഷിനേക്കാക്കൂട്തലെനിക്കു തോന്നും കൂടുതലും സംസ്കൃതമാണ് നമ്മുടെ മലയാളത്തിനെ സ്വാധിനിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതുപോലെ തന്നെ തമിഴും തമിഴും സ്വാധിനിച്ചിട്ടുണ്ട് തമിഴും കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളുമായി പങ്കിടുന്നത് കൂടുതലും കന്നഡയും തമിഴും ഒക്കെ ഇടകലർന്നാണ് സംസാരിക്കുന്നത് അപ്പം എല്ലാ ഭാഷകളും തന്നെ നല്ല സ്വാധീനമുണ്ട് മലയാള ഭാഷയ്ക്ക് എന്നാണ് എന്റെ അഭിപ്രായം